ചെറുകിട ബിസ്നസുകളുടെ വളർച്ചയെന്ന് പറഞ്ഞാല് ഞാൻ ഞങ്ങളൊരു ചെറുകിട ചെറുകിട ബിസ്നസ് ആണ് ആദ്യം തുടങ്ങിയത് ചെറിയ ഒരു കടയായിരുന്നു ചെറിയ ചെറിയ സാനങ്ങള് അതായത് ഇലട്രോണിക് സാധനങ്ങളുടെ ഇലക്ട്രിക്കൽ സാധനങ്ങളുടെ ഒരു കടയായിരുന്നു അപ്പോള് ചെറിയ ചെറിയ സാധനങ്ങൾ ഞങ്ങൾ ആദ്യമൊക്കെ വാങ്ങി വെച്ചത് സാമ്പത്തിക പ്രശനങ്ങൾ കൊണ്ട് മാത്രമാണ് ഞങ്ങള് അങ്ങനെ ചെറിയൊരു സംരംഭമായിട്ട് തുടങ്ങിയത് പിന്നീട് ഞങ്ങള്ക്ക് എന്നാ സാധനങ്ങള് ഈ വിറ്റഴിയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങളതിൻ്റെ ലാഭമൊക്കെ വച്ച് പിന്നീട് കൂടുതൽ കൂടുതൽ സാധനങ്ങൾ ആഡ് ചെയ്യാൻ തുടങ്ങി അപ്പോള് ഇപ്പോള് അത്യാവശ്യം ഒരു ഒരു വീടിനു വേണ്ട സർവ സാധനങ്ങളും ഇലട്രിഷൻ്റെ സമയത്ത് നമുക്ക് ഇലട്രിക്കൽ സമയത്ത് ചെയ്യണ്ടതായ ഒരുമാതിരി പെട്ട സാധനങ്ങളെല്ലാം തന്നെ പുതിയ ടെക്നോളജി അനുസരിച്ചുള്ള സാധനങ്ങളെല്ലാം തന്നെ നമ്മടെ കടയിലിപ്പോള് ഉണ്ട് ഞങ്ങള്ക്കത് നല്ലൊരു വളർച്ചയാണ് ഞങ്ങളുടെ ജീവിതത്തിള് ഞങ്ങള് നേടുന്ന വൻ നല്ലൊരു സാമ്പത്തിക വളർച്ച ഞങ്ങള്ക്ക് കിട്ടിയിട്ടുണ്ട് വരും കാലങ്ങളിലേക്ക് ഇനി ഞങ്ങള് പുതിയ ടെക്നോളജികള് അനുസരിച്ച് എന്തൊക്കെ സാധനങ്ങളാണ് വരുന്നേ അതെല്ലാം തന്നെ എടുത്ത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള എല്ലാ സാധനങ്ങളും ആൾക്കാരിലേക്ക് എത്തിക്കാനും ഒക്കെയുള്ള ശ്രമിക്കുന്നുണ്ട് തുടർന്ന് ബിസ്നസ് നന്നായിട്ടെക്സ്റ്റെന്റ് ചെയ്ത് കൊണ്ടുപോവണം എന്നുതന്നെ ആഗ്രഹിക്കുന്ന ആളാണ് ഞങ്ങള് അപ്പോള് ആ ഒരു രീതിയില് ഞങ്ങളുടെ ബിസ്നസിനെ കൊണ്ടുപോവുന്നുണ്ട്